ഇരുപത്തിരണ്ട് പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഇരുപത്തിഒൻപത് പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഇരുപത്തിആറ് ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് മുപ്പത്തിഒന്ന് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഇരുപത്തിഒൻപത് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത്